എനിക്കേറെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് പേരിസ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ വിസിറ്റ് ചെയ്യണം വിസിറ്റ് ചെയ്യണം എന്ന ഇത് വരെ സാധിച്ചിട്ടില്ല വൺ ഓഫ് മൈ ഫസ്റ്റ് പ്രിഫെറെൻസ് പേരിസാണ് ദി സിറ്റി ഓഫ് ലൗ അതുകൊണ്ട് തന്നെയാണ് പേരിസ് വിസിറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം സെക്കൻഡ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ കാശ്മീർ ഒരുപാട് മനോഹര കാഴ്ചകളുടെ കാശ്മീർ കാണാൻ വളരെ അധികം ആഗ്രഹമാണ് പിന്നെ ഉള്ളത് ബദ്രിനാഥ് ക്ഷേത്രം അതും ഒരു ഡ്രീമാണ് ബദ്രീനാഥ് ക്ഷേത്രം പോയി കാണണം തൊഴണം ഒരു പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കും പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ എന്താ പറയുക നമുക്കിഷ്ടമില്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല എല്ലാം കാണണം ഇഷ്ടമുള്ള എല്ലാം പേരിസ് കാശ്മീർ ബദ്രിനാഥ് ഋഷികേഷ് കുളു മണാലി ഇവിടെയെല്ലാം വിസിറ്റെയ്യണം ലഡാക്ക് ലഡാക്ക് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റീ സീനറി ഫോർ എ റൈഡ് വളരേ പ്രകൃതി രമണീയമായ വഴികളിലൂടെ യാത്ര ചെയ്യണം അതിനാണ് ലഡാക്ക് പിന്നെ ഗോവ അടിപൊളി ത്രില്ലിങ്ങ് വൈബിന് ഗോവ